നമുക്ക് കൂടുതലും കാർഷിക വിളകൾ റബ്ബർ അങ്ങനെ അല്ലാതെ പച്ചക്കറി കൃഷി അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവിടെ കൂടുതലും ഇവിടെ നമ്മൾ വിൽക്കാൻ വേണ്ടി കൂടുതലും ഇവിടെ ഓരോ മാർക്കറ്റുകളെ ബേസ് ചെയ്താണ് ഇപ്പം ഇവിടെ ഇപ്പം ആ ആദായ ആദായ ചന്ത അങ്ങനെയൊക്കെ ഒരുപാട് ഈ സൊസൈറ്റികളൊക്കെ നടത്തുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അതു വഴിയാണ് നമ്മൾ കൂടുതലും വിൽക്കുന്നത് ആ കമ്പോളങ്ങൾ എന്ന് പറഞ്ഞാൽ ആഴ്ച്ച ഒരു ദിവസം എന്തായാലും നമ്മുടെ ഇവിടെ മാർക്കറ്റ് ഉണ്ടാവും